ഇന്ത്യയിലെ നർത്തകരെ ബോളിവുഡ് എത്ര മാത്രം സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ ബോളിവുഡ് സിനിമകളിലും അവിടത്തെ കലാരൂപങ്ങളിലും ഇന്ത്യയിലെ നർത്തകരെ ഒരുപാട് ഉപയോഗിച്ചു അതിനെ പുറത്ത് കൊണ്ടുവരാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നതായി തോന്നീട്ടുണ്ട് കാരണം പല സിനിമകളിലും നർത്തകരുടെയും അവരുടെ പാട്ടിനേയും കലയേയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സിനിമകളും പുറത്തു വരാറുള്ളത് ബോളിവുഡ് അതിനെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നേ ചില നൃത്ത നിത്യഹരിത നൃത്ത ഗാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പഴയ ഒരുപാട് പാട്ടുകളും അതുപോലെ തന്നെ രാഹത്ത് രാഹത്ത് ഫത്തലിഖാൻ്റെയും അർജിത് സിംഗിൻ്റെയൊക്കെ പാട്ടുകൾ തന്നെയാണ് ഇന്നും നൃത്ത രൂപങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ പഴയ ഒരുപാട് പാട്ടുകൾ നൃത്ത പാട്ടുകളായി ഇപ്പോഴും ഈ ജനറേഷനിലും ഒരുപാട് പേര് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും